ഹലോ എന്താ പ്രശ്നം അത് എപ്പോഴും ഞാൻ രാവിലെ രാവിലെ ആക്കുന്നതല്ലെ നമുക്കിപ്പോൾ അതിന്റുള്ളിൽ ഇറങ്ങി നോക്കാൻ കഴിയില്ലല്ലോ നമ്മൾ വൃത്തിയായിട്ട് തന്നെയാണ് സാധനം കൊടുക്കുന്നത് നമ്മൾ പഴയതൊന്നുമല്ല കൊടുക്കുന്നത് നമ്മൾ രാവിലെ സാധനം ആക്കിയാൽ സാധനം വെച്ചിട്ട് രാത്രി വെരെ കൊടുക്കും പിന്നെ രാത്രി മിച്ചമുണ്ടെങ്കിൽ കളയും ഒരിക്കലും ഇല്ലാ തലേന്നത്തെ സാധനം നമ്മൾ രാവിലെ നമ്മൾ ഉണ്ടാക്കിട്ട് വൈകുന്നേരം വരെ കൊടുക്കും അത് നമ്മളും കഴിക്കുന്നുണ്ടല്ലോ പിന്നെ നമുക്കും കംപ്ളേയിന്റ് ഇല്ലല്ലോ പിന്നെ നിങ്ങൾക്ക് മാത്രം കംപ്ളേയിന്റ് ആ അപ്പം അതെന്തേലും പ്രശ്നമായിരിക്കും അല്ലാതെ നമ്മുടെ ഫുഡ്ഡ് പീടികയിലെയൊക്കെ ബോണ്ട തിന്നിട്ട് ഛർദ്ദി വന്നതൊന്നും നിങ്ങളറിഞ്ഞില്ലേ അതിൽ പിന്നെ രാവിലെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല എന്നാൽ പിന്നെ എല്ലാവർക്കും ചർദ്ദി ഉണ്ടോ ഇല്ലാ നമ്മൾ കഴിച്ചിട്ട് നമുക്ക് ഛർദ്ദിയില്ലല്ലോ പിന്നെനിങ്ങൾക്ക് മാത്രം ഛർദ്ദി വാണ്ടേ അല്ല ആൾ കൂട്ടത്തിൽ നിങ്ങൾ കയറണ്ട എന്നാൽ നിങ്ങൾ കംപ്ളേയിന്റ് കൊടുക്ക് എന്നാൽ നിങ്ങൾ കംപ്ളേയിന്റ് കൊടുക്ക് കംപ്ളേയിന്റ് കൊടുക്ക് നിങ്ങൾ തീരുമാനിക്ക് ആ നിങ്ങൾ കൂട്ടിയിട്ട് വാ എന്നിട്ട് നമുക്ക് പറയാം